പണ്ടുക്കാലം മുതലെ കൃഷിയായിരുന്നു നമ്മുടെ പൂര്വികരുടെ മുതല് ഒരു പ്രധാന തൊഴിലെന്ന് പറയുന്നത് അതുപോലെ കോട്ടയം ജില്ലക്കാരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു ഇപ്പോഴാണെങ്കിലും കൃഷിയിലൂടെ ജീവിക്കുന്ന ഒരുപാട് പേരുകള് കോട്ടയം ജില്ലയിലുണ്ട് ഒ പ്രധാന എന്താ കപ്പ കുരുമുളക് ഇഞ്ചി ഇത്പോലെ ഉള്ള സാധനങ്ങളാണ് പ്രധാനമായും റബ്ബറ് ഇതുപോലൊള്ള കാര്യങ്ങളാണ് പ്രധാനമായും കോട്ടയം ജില്ലയില് കൃഷി ചെയ്യുന്നത് അത്പോലെതന്നെ ഈ കൃഷിയോട് കൂടെത്തന്നെ ഉള്ളതാണ് കന്നുകാലി വളര്ത്തല് കന്നുകാലി വളര്ത്തല് പ്രധാനപ്പെട്ട ഒരു തൊഴിലായിട്ട് കാണാം പല വീടുകളിലും കന്നുകാലികള് ആട് അങ്ങനെയൊള്ള മൃഗങ്ങളെയെക്കെ വളര്ത്തുന്നുണ്ട് അത്പോലെതന്നെ ഈ പന്നി പന്നി ഫാം അതുപോലെയുള്ള ഇതൊക്കെ ഉണ്ട് നല്ലൊരു വരുമാന മാര്ഗം കൂടിയാണ് ഇവ